ഇപ്പോൾ എനിക്ക് ലോകത്തില് എവിടെ വേണങ്കിലും പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കി ൽ ഞാന് ഞാന് ഇപ്പോൾ സെലക്ട് ചെയ്യുക എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലും നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ ഒക്കെ സ്ഥലത്ത് നിൽക്കുന്നതിലും കൂടുതല് സാലറിയും പൈസയും ഇപ്പൊൾ ജീവിക്കാനുള്ള ഒരു സാലറിയും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ പുറമേ അതായത് അന്യസംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാനം പോയിട്ട് അന്യ നാടുകളിലേക്കൊക്കെ പോകണ്ട ഒരവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത് അപ്പൊൾ നമ്മളതൊക്കെ നോക്കീട്ട് എന്താ പറയുക ഇപ്പൊൾ നോക്കുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുവ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ജോലി നോക്കുക അതൊക്കെയാണ് നമ്മുടെ ഒരാഗ്രഹം അപ്പൊൾ അതിനുപറ്റിയ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്താ പറയുക ഞാൻ ഉറപ്പായിട്ടും പുറത്ത് പ്പോ എന്താ പറയുക അന്യ രാജ്യങ്ങളിൽ പോവുകയും അവിടെ പോയിട്ട് നല്ല ജോലിയൊക്കെ അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അത്യാവശ്യം സാലറി ഒക്കെ ആക്കിയതിനു ശേഷം ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുള്ളു അപ്പോൾ ഇപ്പൊൾ ആരോട് ചോദിച്ച് കഴിഞ്ഞാലും എല്ലാവരുടെയും ഒരഭിപ്രായം അതുതന്നെയാണെന്നാണ് എൻറെ ഒരു നിഗമനം അപ്പൊൾ അത്തരത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം മനുഷ്യന്മാരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ ആണ്